ആ ചേട്ടാ എന്താണ്

നിങ്ങൾക്ക് എവിടെയാണ് വീട് വേണ്ടത് സ്ഥലം നോക്കുന്നത് ഇപ്പോൾ ടൗണിലാണോ വില്ലേജിലാണോ ആ റോഡ് സൈഡ് വേണമല്ലേ ആ അപ്പോൾ നമുക്കിപ്പോൾ സ്കൂൾ അങ്ങനെയെന്തെങ്കിലും സ്കൂളോ കോളേജ് ഹോസ്പ്പിറ്റൽ അങ്ങനെയെന്തെങ്കിലും നോക്കുന്നുണ്ടോ ആ അടുത്ത് കടകളൊക്കെ ഉള്ളത് വേണമല്ലേ ആ അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ അഞ്ച് എത്ര സെൻറ്റ് സ്ഥലം വേണം ആ എത്ര സെൻറ്റ് സ്ഥലം വേണ്ടി വരും നിങ്ങൾക്ക് സ്ഥലം വരുന്ന വീടായിരിക്കണോ അതോ വീടും സ്ഥലവും കൂടി ഉള്ളതാണോ വേണ്ടത് സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാനാണല്ലേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടിയുണ്ട് ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഇരിപ്പുണ്ട് സെൻറ്റിന് ഒരു ഒന്നര ലക്ഷം രൂപയാണതിന് പറയുന്നത് നമുക്കെന്തായാലും അത് കമ്മിയാക്കാം ഉം സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഒരു പ്രോപ്പർട്ടി ആയിട്ടും ഇപ്പം നമ്മൾ പാലക്കാട് ടൗണിൽ തന്നെയാണ് ഇപ്പം അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ അടുത്തുണ്ട് ഒരു സ്കൂളും ഉണ്ട് ഒരു ഹോസ്പിറ്റൽ അടുത്തുണ്ട് കുറച്ചൊരു ഒരു കിലോ മീറ്ററിനുള്ളിൽ ഒരു ഹോസ്പിറ്റലുണ്ട് പിന്നെ ആ ഇത് ഒരു ആ വെള്ളം കിണറുണ്ട് അത് കിണർ വീട്ടിനടുത്തുള്ള കിണറിരിപ്പുണ്ട് ആ വെള്ളമുണ്ടാകും ആ വേനൽക്കാലത്തൊക്കെ വെള്ളം വറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോയി നോക്കാം വേനൽക്കാലത്ത് ആ നമുക്കിപ്പോൾ പൈപ്പ് കണക്ഷനൊക്കെ പഞ്ചായത്ത് എഴുതി കൊടുത്താൽ മതി ഇപ്പോൾ വീട് പണി കഴിഞ്ഞിട്ടൊക്കെ നമുക്കെഴുതി കൊടുക്കാൻ പറ്റുകയുള്ളു വീട്ട് നമ്പറും സാധനങ്ങളും ഒക്കെ കയ്യിൽ വന്നാൽ എഴുതി കൊടുത്താൽ വീടിന് പൈപ്പ് വെള്ളം കിട്ടും ആ ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണ് നോക്കാൻ പോകാൻ പറ്റുക നമുക്കിപ്പം ഒരു ദിവസം അയ്യാ തിങ്കളാഴ്ച്ച ഒരു റെജിസ്ട്രേഷനുണ്ടേ അപ്പോൾ ഈ ഞായറാഴ്ച്ച പോയാലോ ആ ഞായറാഴ്ച്ച ലീവാണ് ഞാൻ അപ്പോൾ ഒരു വൈകുന്നേരങ്ങളിൽ പോയി നോക്കാം മൂന്ന് മണി ആകുമ്പോൾ ആ ആ വേറെ വല്ലതും നോക്കുന്നുണ്ടോ ഇല്ല വേറെ എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ ചോദിക്യ ഇപ്പോൾ ടൗണിൽത്തന്നെ വേണമെന്നുണ്ടോ അതോ പാലക്കാട് ദൂരം കൂടുതലാകുമല്ലോ ആ ആ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് അടുത്ത് ആ സ്കൂളിനടുത്തു നിന്നോ ഇല്ലെ അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നത് ദൂരെ ആകുമ്പോൾ ബുദ്ധിമുട്ടാകുമോ ആ പോയി വരുന്ന പോലെ വേണമല്ലെ പെട്ടെന്ന്

ആ അല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചുറ്റുപാടും വീടുള്ളത് വേണോ അതോ ഒറ്റക്കുള്ള സ്ഥലമാണോ ഇപ്പം ഇത് അപ്പോൾ വീട് വേണമല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ

ചുറ്റും ആൾ താമസമുള്ള ഒരു ഏരിയ വേണമല്ലെ അപ്പോൾ

ആ ഒരു സ്ഥലമുണ്ട് നമുക്കെന്നാലിപ്പോൾ ഞായറാഴ്ച്ച പോയി നോക്കാം ആ ഞാൻ വിളിക്കാം ഇപ്പോൾ നമുക്ക് പോകുമ്പോഴേ ഞാൻ വിളിക്കാം ആ ശരിഎന്നാൽ